സർക്കാർ എല്ലാ ജില്ലകളുടെയും വികസനത്തിനായി വിഭവങ്ങൾ അനുവദിക്കുന്നുണ്ട് എന്നാൽ അതിൽ കുറേയേറെ രാഷ്ട്രീയക്കാരും മറ്റു നേതാക്കന്മാരുമായി അതിൽ നിന്നും ആ അനുവദിക്കുന്ന വിഭവങ്ങൾ പലതും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവർ സ്വയം നേട്ടത്തിനായി പലരും അത് ഉപയോഗിക്കുന്നു ഇത് നിമിത്തം ജില്ലകൾക്ക് മെച്ചമുണ്ടാകുന്നത് കുറവാണ് എങ്കിലും നിരവധി റോഡുകളുടെ വളർച്ചയും അതുപോലെതന്നെ നഗര സമുച്ഛയങ്ങൾ പണിതുയരുകയും ഒരു പഞ്ചായത്താണെങ്കിലോ ഒരു മുൻസിപ്പാലിറ്റിയാണെങ്കിലോ അതിൻ്റെ വളർച്ചയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെയും അതുപോലെതന്നെ ജില്ലകളുടെയും വളർച്ച നല്ലവിധം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായ എല്ലാ സഹകരണങ്ങളും സർക്കാർ അനുവദിക്കുന്നുണ്ട് എന്നാൽ ജില്ലകളിൽ പലതരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങൾക്ക് ഗ്രാമപ്രദേശത്തിൻ്റെയും നഗരവൽകരണവും അതുപോലെതന്നെ പുതുതലമുറയ്ക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം അതുപോലെതന്നെ റോഡ് വായ്പാ സഹായങ്ങൾ തുടങ്ങിയ എല്ലാം നൽകുകയാണുള്ളത് ഇവ നിമിത്തം പുതിയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ കേരളത്തിലെ എല്ലാ ജില്ലകളെയും മുൻപോട്ട് നയിക്കുന്നു അതുപോലെ തന്നെ കൃഷിക്കായിട്ടുള്ള സഹായങ്ങളും കൃഷി സഹായങ്ങളും സ്വയം തൊഴിൽ പദ്ധതികളും എല്ലാവർക്കും ജോലി സാധ്യതയുള്ള നിരവധി നൈപുണ്യ കോഴ്സുകളും സർക്കാർ പ്രധാനം ചെയ്യുന്നു പരമാവധി റേഷൻ എന്നു പറയുന്നത് ആ ഒരു പദ്ധതി പ്രകാരം ദാരിദ്ര്യം നിർമ്മാർജ്ജനം നടപ്പാക്കാനും സാധിക്കുന്നു മിച്ചമുണ്ടായ വിദ്യാഭ്യാസം നൽകുവാനും സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതലായി പറയാനുള്ളത് നമ്മുടെ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ നിമിത്തം വയനാട്ടിനെ തിരികെ കൊണ്ടുവരാൻ വളരെയധികം കേരള സർക്കാർ ശ്രമിക്കുകയുണ്ടായി അതുപോലെ തന്നെ മറ്റു മറ്റു ജില്ലകളിൽ ടൂറിസമായും മറ്റ് അവർക്കാവശ്യമായിട്ടുള്ള ഓരോ വിഭവങ്ങളായിട്ടും സർക്കാർ അനുവദിക്കുന്നുണ്ട് ഇത് സർക്കാരിൻ്റെ പങ്കാളിത്തം നിമിത്തം വളരെയധികം മെച്ചമുണ്ടായ നിരവധി ജില്ലകൾ ഉണ്ട് അതുകൊണ്ടുതന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ റോഡിൻ്റെ ആറുവരിപ്പാത എന്നൊരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്